മത്സ്യ ബന്ധനത്തെ മറ്റ് തൊഴിലുകളിൽ നിന്ന് എറ്റവും കൂടുതലൽ വ്യത്യസ്തമാക്കുന്നത് എനിക്ക് തോന്നിയത് ഒന്ന് മത്സ്യ ബന്ധനത്തിന് നമ്മൾ ഉൾക്കടലിലേക്ക് ആഴ കടലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ഒപ്പമുള്ള ക്രു നമ്മളുടെ ഒപ്പമുള്ള മെംബേഴ്സ് ആയിട്ട് അങ്ങേയറ്റം സഹകരിക്കേണ്ടിവരും സഹകരണം മാത്രം പോര സഹകരിക്കണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇമോഷണൽ കണക്ഷനും സ്നേഹവും എല്ലാം വേണം എന്നാലെ നമുക്കാ മത്സ്യ ബന്ധനം എല്ലാവരെയും കൂട്ടായ ഒരു പ്രവർത്തനമാണ് മത്സ്യബന്ധനം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് മീനിനെ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ അതാണ് എനിക്ക് എറ്റവും പിന്നെ വലിയ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഒഫ്കോസ് നമുക്ക് കടൽലേക്ക് പോവുകയാണ് ഒരു സാഹസികം സാഹസികമായ യാത്രയാണ് കടൽ അറിയാത്തവർക്ക് കടലിനെ പേടിയായിരിക്കും കടലിൽ പോയവർക്ക് പേടിയുണ്ടാകില്ല നമുക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ അപകടങ്ങളല്ലെങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു സാഹസികത അനുഭവിച്ചറിയാൻ നമുക്ക് വീണ്ടും വീണ്ടും ഒരു പ്രചോദനം ഉണ്ടാകും അപ്പോൾ ഇതാണെനിക്ക് എറ്റവും കൂടുതലായിട്ട് തോന്നിയത് സാഹസികത